ഇന്ത്യയിലെ ഭക്ഷണ രീതികൾ എന്ന് പറയുമ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഭക്ഷണമാണ് ഇപ്പോൾ ഇന്ത്യയിൽ നോക്കുമ്പോൾ ഇന്ത്യയിൽ തന്നെ എത്ര എത്രയോ സംസ്ഥാനങ്ങൾ ഉണ്ട് അപ്പോൾ ഈ ഇത്രയും സംസ്ഥാനങ്ങളില് പല തരം ഭക്ഷണങ്ങളാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് എന്ന രീതിയിൽ നാല് രീതിയിൽ ഇന്ത്യയെ വേർതിരിച്ചിട്ടുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓരോ സംസ്ഥാനത്തും തെക്കുള്ള നമ്മുടെ കേരളത്തിലും അതുപോലെ വടക്കുള്ള നമ്മുടെ ജമ്മു കാശ്മീരിലും ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളുടെ രുചിക്കൂട്ടുകൾ പലതും വ്യത്യസ്തമാണ് ഇന്ത്യയിലെ ഭക്ഷണരീതികൾ എന്ന് പറയുമ്പോൾ കേരളത്തിൽ ആയിക്കോട്ടെ നമുക്ക് ഇവിടെ ഇഡ്ഡലി ദോശ സാമ്പാർ അങ്ങനെ അതുപോലെ തന്നെ ചപ്പാത്തി അതുപോലെ തന്നെ ചോറും മറ്റ് കറികളും അങ്ങനെ ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഒരു സ്പൈസി ആയിട്ടുള്ള ഭക്ഷണ കൂട്ടുകളാണ് പൊതുവേ കേരളത്തിൽ ഉള്ളത് അതാണ് പൊതുവേ മലയാളികൾക്ക് ഇഷ്ടം എന്നാൽ അങ്ങോട്ട് എന്നാൽ വടക്കോട്ട് പോകുന്ന സമയത്ത് ഈ ഒരു എരിവേറിയ ഭക്ഷണങ്ങൾ അത്ര താല്പര്യം ഇല്ലാത്ത ആൾക്കാരും ഉണ്ട് അവർക്ക് അങ്ങനെ ഒരുപാട് മസാലകളും മറ്റും കാര്യങ്ങൾ ചേർത്ത് ഭക്ഷണങ്ങൾ ആയിരിക്കില്ല അവരുടെ പ്രിയമായിട്ടുണ്ടാവുക മസാലകളൊക്കെയെന്ന് പറയുമ്പോൾ നമുക്ക് പല രുചിക്കൂട്ടുകൾ ഇപ്പോൾ ചിക്കൻ കറിയൊക്കെ വയ്ക്കണ സമയത്ത് പല മസാലകളും മറ്റും ചേർത്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത് അത് നമ്മുടെ കേരളീയർക്കുള്ളൊരു കേരളീയർക്ക് മാത്രം പറയാവുന്ന ഒരു അവകാശമല്ലെങ്കിൽ അതാണ് കേരളീയർക്ക് മാത്രം അഭിമാനകരമായി എന്ന് പറയുന്ന കാര്യമാണ്